ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പണ്ടത്തെ പത്താം ക്ലാസ് ഇപ്പോഴത്തെ പത്താം ക്ലാസ് ഒക്കെ തമ്മിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്നൊരു കുട്ടിക്ക് ഒരു മാത്സ് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് പാസ് ആവാനായിട്ട് വേണ്ടി മാത്രം എന്തൊക്കെയോ പഠിച്ച് വരുന്നു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന വിദ്യാർത്ഥിക്ക് ഒരു പാസ് മാർക്കിന് വേണ്ടി കുറച്ച് ഭാഗം മാത്രം പഠിക്കുന്നു ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കിയിട്ടാണ് പഠിക്കുന്നത് അപ്പം ഇതിൻ്റെ തുടർച്ചയാണ് ഡിഗ്രിയിലും മറ്റും വരുന്നത് അപ്പോൾ അത് അവർക്ക് പിന്തുടർന്ന് പോവാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ട് വരുകയാണ് എല്ലാവരെയും ജയിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രവണത തന്നെ ഇല്ലാതാക്കണം ശരിക്കും ഗുണമുള്ള കുട്ടികൾ തന്നെ മെച്ചപ്പെട്ട കുട്ടികൾ മാത്രം പാസ് ആവുക അല്ലാത്തവർ പാസ് ആവേണ്ട അവർ പഠിക്കട്ടെ വീണ്ടും പഠിക്കട്ടെ എല്ലാവരെയും ഇങ്ങനെ ഒരുപോലെ പാസ് ആക്കി വിട്ടതുകൊണ്ട് ഒരു കാര്യമില്ല ഓരൊരു സർക്കാർ മാറി വരുന്നതിനനുസരിച്ച് അവർക്ക് പറയാം ആ പത്താം ക്ലാസ്സിൽ ഇത്ര അധികം പാസ് പെർസെൻറ്റേജ് ഉണ്ടായി വിജയ ശതമാനം വന്നു എന്ന് പറയാമെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു കടത്തി വിടൽ മാത്രമാണ് അവർക്കത് കൊണ്ട് ഒരു ക്വാളിറ്റിയും കൂടുന്നില്ല അവർക്കൊരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനായിട്ട് അവർക്ക് അവരുടെ പഠനോപകര ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറേ പേരൊക്കെ പാതി വഴിയിൽ പഠനം നിർത്തി പോവുന്നത് തടയാൻ പറ്റും കുട്ടികൾ പഠിച്ച് വളരട്ടെ അല്ലാതെ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുച്ഛമായ ഇതിന് വേണ്ടിയിട്ട് ഭാവി കൊണ്ട് കളയരുത് അവർ പഠിച്ച് തന്നെ ജോലി നേടട്ടെ എന്നുള്ളതാണ് പിന്നെ സർക്കാർ ഉദ്യോഗ സ്കൂളുകളിലും മറ്റും ഐ സി ടി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ സജ്ജമാക്കേണ്ടത് അത്യാവശ്യമാണ്